ഹലോ ഗ്യാസ് ഏജൻസി അല്ലേ എൻ്റെ കൺസ്യൂമർ നമ്പറേ സി എക്സ് ഒന്ന് ഒമ്പത് പൂജ്യം മൂന്ന് ഒമ്പത് ഏഴ് എട്ട് ഒന്നാണ് എനിക്ക് അത്യാവശ്യമായിട്ടൊരു സിലിണ്ടർ വേണമല്ലോ എൻ്റെ ഞാനിപ്പം വീട് മാറി താമസിക്കുവാൻ പോയിട്ട് പോയിട്ട് അത്യാവശ്യമായിട്ടൊരു സിലിണ്ടർ വേണം എൻറെ ഡെലിവറി ചെയ്യേണ്ട അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ലത സുരേഷ് ഗായത്രി ഭവൻ കോഴഞ്ചേരി പെട്ടെന്ന് എത്തിക്കണേ